സത്യത്തിൽ പിന്നെ മലയാളികളെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള എല്ലാ ഭാഷക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മലയാളികളുടെ കാഴ്ചപ്പാടുകളും അവരുടെ ആചാരങ്ങളും അവരുടെ സാംസ്കാരിക മേഖലകളും മറ്റു മറ്റു ചുറ്റപ്പെടുത്തലൊക്കെ മറ്റുള്ള ഭാഷക്കാരേക്കാളും മറ്റുള്ള എല്ലാ പ്രാദേശിക ജീവനക്കാരെക്കാളും എല്ലാം വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അവരുടേതായ ലോകം അവരെ എന്ത് ചെയ്യുന്നു മറ്റുള്ള അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു മലയാളിയെ അവരുടെ കൈയിൽ സപ്പോർട്ട് ചെയ്യുന്നു അവരെ പരമാവധി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഒറ്റ എല്ലാത്തിലൂടെയും അവരെ വളർത്തിയെടുക്കുന്നു അവരെ പരസ്പരം ഒരു സമ്പർക്കമായിട്ട് ഒരു സാമൂഹ്യമായ ഒരു ഒരു പ്രോത്സാഹനത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ട സമൂഹമാണ് മലയാളികളെന്ന് നിന്നത് അധികവും മലയാളികൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ അവർ കളികളുടെ ഫോക്കസ ചെയ്യുന്നു അവർ അധികവും സ്പോർട്സുകളുടെ ഫോക്കസ് ചെയ്യുന്നു ഞാൻ അധികം പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ മലയാളികളെ അവരുടെതായ ഒരു ഒരു അവരൊരു ദ്രാവിഡിയൻ എത്നോസിസ് ആകണം അപ്പം അവർ അതിൽ തന്നെ എന്ത് ചെയ്യുന്നു ഒരു ഒരു ഇതിനെ കണ്ടെത്തുന്നുണ്ട് ഒരു ഒരു ജീവിതത്തെ കണ്ടെത്തുന്നു അതിലുള്ളവർ ജീവിക്കുന്നു അവരെ എന്ത് ചെയ്യുന്നു ലോകത്തെ പല ഭാഗത്തവരുണ്ട് ഈ മലയാളികളെന്ന് പറയുമ്പം എന്താണ് ഇന്ത്യയിലുണ്ട് മറ്റ് പല ദേശത്തും മലയാളികളുണ്ട് അവർ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലല്ലാതെ ഗൾഫിനും മറ്റും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ജപ്പാൻലും എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ എന്ത് ചെയ്യുന്നു അവർ അവിടെ ജീവിക്കുന്നു അവർ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നു അങ്ങനെ അവർ അവർ എല്ലാ സാമ്പത്തിക മേഖലകളിലും മറ്റ് എല്ലാ മേഖലകളിലും പരസ്പരം ഒരു സഹായിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് മലയാളികളുടെ ജന സമൂഹം എന്ന് പറയുന്നത് അവർ പലപ്പോഴും എന്താണ് അവർ അവരുടേതായ ഒരു മേഖലകൾ കണ്ടെത്തി അവർ ഫോക്കസ് ചെയ്ത് അവർ എന്ത് ചെയ്യുന്നു ജീവിതത്തെ പല മാർഗ്ഗത്തിലൂടെയും കൊണ്ട് കൊണ്ട് നടക്കുന്നു അധികവും ഗൾഫിലേക്ക് പ്രവാസ ജീവിതം നയിച്ച് പോകുന്ന ഇത്രയും മലയാളികളുണ്ട് അങ്ങനെ മലയാളികൾ എന്ത് ചെയ്യുന്നു പരസ്പരം ഒരു എല്ലാ രാജ്യത്തോടും ഒരു ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് എല്ലാ രാജ്യങ്ങളും പടർന്ന് പിടിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നു ചില മലയാളികൾ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുക എന്ന് പറയുക മലയാളികളുണ്ട് അതുപോലെ തന്നെ വീടിനടുത്തുള്ള ജോലിക്ക് പോകുന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ആയ മലയാളികളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ പുറത്തും മലയാളികളുണ്ട് വലിയ വലിയ ഇ്റർനാഷണൽ കമ്പനികളിലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മലയാളികൾ ഇങ്ങനെ വലിയൊരു സമൂഹമായി ജീവിക്കുമ്പോൾ അവർ എല്ലാവരതും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം അഭിനന്ദിക്കുകയും പരസ്പരം എല്ലാവരെയും ഒരു ഒത്തൊരുമയായി കാണുകയും ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു ഒരു തത്ത്വത്തെ അവർ വളർത്തിയെടുക്കുന്നതും വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട് മലയാളികളെ സംബന്ധിച്ചെടുത്തോളം അവർ കായിക മേഖലകളിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ അവർ എന്ത് ചെയ്യുന്നു കായികപരമായിട്ടും അതുപോലെ തന്നെ പഠന പാഠ്യേതര വിഷയങ്ങളിലും അവർ എന്ത് ചെയ്യുന്നു വളരെയധികം മികവ് പുലർത്തുന്നുണ്ട്